ഇന്ത്യയിൽ ഏറ്റവും തീർച്ചയായിട്ടും പോകേണ്ട സ്ഥലങ്ങളാണ് ഡൽഹി അതേപോലെ ഡൽഹിയിൽ തന്നെ കുറേ കാര്യങ്ങൾ മുഗൾ രാജാക്കന്മാരുണ്ടാക്കിയ ഡൽഹി ഖുത്ബ് മിനാർ പിന്നെ താജ്മഹൽ ചെങ്കോട്ട അതൊക്കെ ഡൽഹിയിലാണ് അതൊക്കെ തീർച്ചയായിട്ടും കാണേണ്ടൊരു സ്ഥലങ്ങളാണ് അതേപോലെത്തന്നെ ഖുത്ബ് മിനാർ അതേപോലെ ഹൈദരാബാദ് ചാർമിനാർ ചാർമിനാർ ജമ്മുകശ്മീരിൽ തീർച്ചയായിട്ടും പോവേണ്ടത് സ്ഥലങ്ങളാണ് ഇന്ത്യയിലെ ഭൂമിയുടെ സ്വർഗം എന്നൊക്കെയാണ് ജമ്മുകശ്മീരിനെക്കുറിച്ച് പറയപ്പെടുന്നത് അത് അത്രക്കും മനോഹരമായ സ്ഥലം ആണ് ജമ്മുകശ്മീർ അതേപോലെത്തന്നെ മറ്റൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഡൽഹിക്ക് കുറച്ച് അടുത്തായിട്ട് ഏകദേശം അടുത്ത് പറയാൻ പറ്റൂല എങ്കിലും കുറച്ച് അധികം ദൂരമില്ലാത്ത കുളു മണാലി ഇതുപോലത്തെ സ്ഥലങ്ങൾ ഡൽഹിയിൽ ഇതൊക്കെ കാണേണ്ട ഒരു സ്ഥലങ്ങളാണ് അതേപോലെ ഹിമാലയം ഹിമാലയ പർവ്വതനിരകൾ അതൊക്കെ കാണേണ്ടൊരു സ്ഥലം തന്നെയാണ് അതേപോലെത്തന്നെ അജ്മീർ അജ്മീർ അതൊക്കെ കാണേണ്ട ഒരു സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യൽ ഒക്കെ കാണേണ്ടതായിട്ടുണ്ട്